എൻ്റെ അറിവില് ഞാനിപ്പോൾ അത് ഇതേപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ അജ്ഞാത ജീവമായിട്ടുള്ള എന്തെങ്കിലും ഒരു പകൽ ചലിക്കുന്നതോ പറക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ ജീവികളെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ നമ്മളതിനു വേണ്ടി സേർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമെന്തെന്ന് വെച്ചാൽ ഇപ്പം വികസന രാജ്യങ്ങളില് എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ തന്നെ അവരും നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ ചന്ദ്രനിൽ ഇപ്പം ഓരോ ഗ്രഹങ്ങളിലെ ജീവജാലം ഉണ്ടോ ഇപ്പം ചന്ദ്രനിലെ ചന്ദ്രനിലെ ജീവൻ ജീവനുള്ള വസ്തുക്കളുണ്ടോന്നറിയാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മളതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ നമുക്കൊരാകാംഷയുണ്ട് അത് കാണണം എന്താണിത് ഉള്ളതെന്നറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ട് പക്ഷെ അതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എക്സാമ്പിൾ ഈ വികസന രാജ്യങ്ങളൊക്കെത്തന്നെ അവരൊക്കെ ഈ ഓരോ ഗ്രഹങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവികളുണ്ടോ ആൾ ഇനി മറ്റേ എക്സാമ്പിൾ ആ ബൊ ഒരു ആൾക്കാർക്ക് തന്നെ അവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ആദ്യം ഇത് കണ്ടാലേ ഒക്കത്തുള്ളല്ലൊ അങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനുള്ള ആ ഒരറിവേ ഉള്ളൂ അത് സെർച്ച് ചെയ്യുന്നേ എന്നുള്ള അറിവേ ഒള്ളൂ നമ്മൾ നേരിൽ കാണാനുള്ള ഇത് കിട്ടിയിട്ടില്ല അതാണ്